എനിക്ക് കാപ്പിക്കൃഷിയാണുള്ളത് അത് ഡിസംബർ ജനുവരി ആകുമ്പോളാണ് അതിന് വിളവെടുപ്പ് ഇല്ലാ അത് കവാട്ട് ചെയ്യും പിന്നെ നനച്ച് കൊടുക്കും ഇതൊക്കെ ആണെൻ്റെ കൃഷി ഇങ്ങനെയൊക്കെ പിന്നെ ചേനയുണ്ട് ചേന മകരത്തിലൊക്കെ നടുക പിന്നെ അത് വിളവെടുപ്പ് സീസൺ സമയത്ത് വില കുറവായിരിക്കും അത് ചിലപ്പം എലി ശല്യം ഉണ്ടാകും അങ്ങനെ ഒക്കെയാണ് കൃഷി പാകുന്നത്